ഇന്ന് മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ ഒത്തിരി ചെയ്യുന്ന ഹോസ്പിറ്റൽ ഒക്കെ ഒത്തിരി ഉണ്ട് പക്ഷേ ആർക്കും അതിനെ കുറിച്ച് ഒന്നും അറിയാൻ പറ്റുന്നില്ല അറിയാതെ വീടുകളിൽ തന്നെ കഴിയുന്നവരുണ്ട് ഒത്തിരി ഡിപ്രഷൻ ആയിട്ടുള്ള വ്യക്തികൾ ഒത്തിരി പേരുണ്ട് വീടുകളിൽ തന്നെ കഴിയുന്നുണ്ട് അതിനെക്കെ അതാ സമയത്ത് ഒന്ന് കൊണ്ട്പോയി ഒന്ന് കൌൺസലിംഗ് ചെയ്യുകയോ ഡോക്ടർമാരെ അതാതിൻ്റെ ഡോക്ടർമാരെ കാണിച്ച് അതിനുള്ള മരുന്നുകൾ ട്രീറ്റ്മൻ്റെകളൊക്കെ ചെയ്യുകയോ ഒക്കെ ചെയ്തുകഴിഞ്ഞാൽ ഒത്തിരി ആയിട്ടുള്ള മാനസികപ്രശ്നങ്ങൾക്ക് ഒരുവിധ പരിധി അവരുടെ അസുഖങ്ങൾ മാറ്റി എടുക്കാവുന്നതേ ഉള്ളൂ മാനസികമായിട്ടുള്ള വിഷമതകൾ ഒക്കെ വരുമ്പോൾ അത് നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ അത് ഒത്തിരി ഡിപ്രെഷൻലോട്ട് അത് ഓരോരുത്തരെ കൊണ്ട് പോകുന്നുണ്ട് പക്ഷെ അത് മാറ്റി എടുക്കാൻ നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലുകളിൽ ഡോക്ടർമാരെ കാണികുക ഒക്കെ ചെയ്യാം അതിനുള്ള ഒത്തിരി ഹോസ്പിറ്റലുകൾ മനഃശാസ്ത്രത്തിൽ ഉണ്ട് അവരെയൊക്കെ കൊണ്ട് കാണിച്ചാൽ അതെ അവരെയൊക്കെ കൊണ്ട് കാണിച്ചാൽ തന്നെ അതിന് ഒത്തിരി അതിൽനിന്ന് അവർക്ക് ഒത്തിരി മാറ്റങ്ങൾ വരും അവരെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുകയും വേണം അവരുടെ കാര്യങ്ങൾ ഒന്ന് നോക്കുകയും ഒക്കെ ചെയ്യുകയും ഒക്കെ വേണം